കേരളം എന്ന് പറയുമ്പോൾ പൊതുവേ ഇടത് പക്ഷത്തിനും സിപിഎമ്മിനും മുൻതൂക്കമുള്ള ഒരു സംസ്ഥാനമാണ് ഇപ്പോൾ തുടർച്ചായിട്ട് രണ്ടാമത്തെ വര്ഷമാണ് ഇടതുപക്ഷം ഇവടെ കേരളത്തില് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഭരണമാണിപ്പോൾ അവര് കാഴ്ച്ച വച്ചുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിനൊന്നും ഒരു കോട്ടം തട്ടാത്ത രീതിലാണ് ഇവിടുത്തെ ഭരണം അതുപോലെ തന്നെ ഉദ്യോഗസ്ഥര് എന്തോ ആയിക്കോട്ടെ നീതിന്യായ വിഭാഗം എല്ലാവരും അതിന്റെ നല്ല രീതിയില് തന്നെയാണിപ്പോൾ പ്രവര്ത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത് ബിജെപിക്ക് കേരളത്തില് ഒരുതരത്തിലുള്ള സ്വാധീനം ഇല്ല അവര് വിചാരിച്ചാല് കേരളത്തില് ഒന്നും നടത്താന് പറ്റാത്ത അവസ്ഥയാണ് കോൺഗ്രസ്ക്കാർ നല്ല രീതിലുള്ള പ്രവര്ത്തനം കാഴ്ച്ച വയ്ക്കാറുണ്ട് ബിജെപിക്ക് നിലവില് കേരളത്തില് ഒരു എംഎല്എ പോലും ഇല്ലാന്നുള്ളത് വാസ്തവം നമ്മള് മനസിലാക്കേണ്ടതാണ്